ഇന്നത്തെ ജനത എല്ലാവരും ജോലിയുടെ പുറകിൽ പോവുന്നത് കൊണ്ട് തന്നെ അവരുടെ ഹോബികളും ആസ്വാദനവും ഇതെല്ലാം കുറഞ്ഞ് കൊണ്ടിരിക്കയാണ് എന്നാൽ ജോലിയ്ക്ക് പുറമെ ഈ മനസ്സിന് കുളിരേകുന്ന പല ഹോബികളും നമ്മള് ഏർപ്പെടുകയാണെങ്കിൽ നമ്മടെ മാനസ്സിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഈ ഹോബികൾക്ക് വളരെ അധികം പ്രാധാന്യമുള്ള ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാണെങ്കിൽ ജോലിക്കഴിഞ്ഞതിന് ശേഷം ഞാന് അല്പം യാത്രകളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ ക്രിക്കറ്റ് ഫുട്ബോള് പോലുള്ള വിനോദങ്ങളില് ഏർപ്പെടുകയും ചെയ്യാറാണ് പതിവ് ഈ ക്രിക്കറ്റും ഫുട്ബോളും പോലുള്ള ഹോബികള് ഞാൻ ഏർപ്പെടുന്നത് കൊണ്ട് എൻ്റെ മാനസ്സിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതുപോലെ തെന്നെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വളരെ അധികം പ്രാധാന്യവാണ് ഉള്ളത് അതുപോലെതന്നെ ഈ ഹോബികളില് ഏർപ്പെടുമ്പോൾ എൻ്റെ സൗഹൃദവും എൻ്റെ ബന്ധങ്ങളും ഇതെല്ലാം ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിയ്ക്കുന്നു എൻ്റെ കൂട്ടുക്കാരുമായിട്ടും അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഇത് തുടർന്ന് കൊണ്ട് പോകുന്നതിനും അവരുമായിട്ടുള്ള ബന്ധം കടുപ്പിയ്ക്കുന്നതിനും ഈ ഹോബികൾ വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുപോലെതന്നെ യാത്രകള് ഏറ്റോം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടുതന്നെ ഒഴിവു ദിവസങ്ങളില് ഈ ജോലികഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ ജോലികഴിഞ്ഞിട്ടുള്ള സമയങ്ങളില് ഞാൻ യാത്രകള് ചെയ്യാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ യാത്രകൾ ചെയ്യുന്നയിലൂടെ നമ്മൾക്ക് പുതിയ പുതിയ സംസ്കാരങ്ങളും അതുപോലെതന്നെ പുതിയ പുതിയ അറിവുകള് പുതിയ പുതിയ സ്ഥലങ്ങള് കാണാമ്പറ്റും പുതിയ ആൾക്കാരുടെ സംസ്ക്കാരങ്ങള് മനസ്സിലാക്കാൻ പറ്റും പുതിയ ആൾക്കാരെ കാണാൻ പറ്റും ഇങ്ങനെ നമ്മുടെ സമൂഹത്തില് നടക്കുന്ന പല പല കാര്യങ്ങള് നമ്മൾക്ക് വിഷ്വലായിട്ട് കാണാനും കണ്ട് അറിയുവാനും ആസ്വദിക്കാനും പറ്റും ഇത് എൻ്റെ ഈ യാത്രയോടുള്ള ഈ ഹോബിക്കൊണ്ടുള്ള ഏറ്റവും വല്യ ഒരു ഒരു ഒരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്